ഹലോ നിങ്ങള് എവിടെയാണുള്ളത് ആണോ ഞാന് ഇവിടെ കോഴിക്കോട് തന്നെ ടൗണിൽ നിൽപ്പുണ്ട് അല്ല എനിക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ നിങ്ങള് ടൗണിൽ എവിടെയായിട്ടാണ് നില്ക്കുന്നത് ആണ് ഞാന് അവിടല്ല ഞാനിവിടെ കുറച്ച് ഫ്രണ്ടിലാണ് ഒരു പലചരക്ക് കടന്റെയൊക്കെ നേരെ ഒപ്പോസിറ്റുണ്ട് ഒരു റെസ്റ്റോറന്റിന്റെക്കെ നേരെ ഫ്രണ്ടില് എനിക്ക് നിങ്ങളെ കാണാന് പറ്റുന്നില്ല അതെ നിങ്ങള് അവിടുന്ന് കുറച്ചുംകൂടെ വരണം രണ്ട് കിലോമീറ്ററുകൂടെ ഫ്രണ്ടിലോട്ട് വരണം പഞ്ചിനിക്കാരന്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാനുള്ളത് അതെ അതെ അപ്പം നിങ്ങളിപ്പം കറക്ട് എവിടെയാണുള്ളെ ഓക്കെ ആ അവിടുന്ന് കുറച്ചുംകൂടെ ടൗണിലോട്ട് വരാന് കുറച്ചുംകൂടെ ദൂരവുണ്ട് അപ്പം രണ്ട് രണ്ടര കിലോമീറ്ററുണ്ട് അപ്പം ഇങ്ങോട്ടെയ്ക്ക് വരണത് വരുമ്പോള് ഒരു പഴഞ്ചിനികട കാണാം അപ്പം അതിന് നേരെ റെസ്റ്റോറന്റ് ആണ് അതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാന് നിൽക്കുന്നത് അതെ അതെ അങ്ങോട്ടെയ്ക്ക് വന്നാൽ മതി എന്തെങ്കിലും ടൌട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാന് അവിടെ തന്നെ ഉണ്ടാകും ഓക്കെ